ഹലോ ആ ആരായിരുന്നു അതെ മറ്റേ സ്ഥലത്തിൻ്റെ അല്ലായിരുന്നോ ആ അപ്പോൾ ഇത് നമ്മുടെ നാട്ടകം പുതിയ ലുലു വരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് ആയിട്ട് വരും കുറച്ച് ഉള്ളിലോട്ട് കയറി മൂലേടമെന്ന് പറയും ആ ലുലുൻ്റെ ലുലുന്ന് ഒരു ഒര് കിലോമീറ്റർ ജസ്റ്റ് ലുലുൻ്റെ ബാക്കിൽ ആയിട്ട് വരും സാറെ ഇത് വരുന്നത് നമുക്ക് ഒരു മുപ്പത് സെൻറ്റ് ആയിട്ട് ഫുൾ ആയിട്ടാണ് അവർ വിൽക്കാൻ നോക്കുന്നത് അത് പ്ലോട്ട് തിരിച്ച് ആണ് വിൽക്കുന്നത് ആ അപ്പോൾ മുപ്പത് സെൻറ്റ് ആയിട്ട് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് പതിനഞ്ച് പതിനഞ്ച് ആക്കാമെന്ന് അല്ലാതെ ഇരുപത് പത്ത് അങ്ങനെ ആക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇത് പ്ലോട്ട് ആയിട്ട് ആയതുകൊണ്ടേ ഇത് ഇപ്പോൾ മേടിക്കുകയാണെങ്കിൽ സാറിന് ലാഭം ആയിരിക്കും കാരണം ഇവിടെ ലുലു ദേ ഇപ്പോൾ പണി ഏകദേശം ഒരു നെക്സ്റ്റ് ഇയറോട് കൂടി തീര തീരും അപ്പോൾ പ്ലോട്ടിന് എല്ലാം വില കൂട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ അപ്പം അതിനും നല്ല സാറിന് വിൽക്കുകയായിരുന്നെങ്കിൽ വിൽക്കുകയാണ് നല്ല റേറ്റ് കിട്ടും കാരണം ഇവിടെ ലുലു ഉള്ളതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കിട്ടും അപ്പം ആ അത് ഇപ്പം ഇവിടെ വളരെ റോഡിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ടും വണ്ടി ഒക്കെ വരും സൗകര്യം ആയതുകൊണ്ട് തന്നെ സെൻറ്റിന് രണ്ടേ മുക്കാൽ ആണ് അവർ ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ സെൻറ്റിന് നമുക്ക് അപ്പോൾ അതിൽനിന്ന് കുറയ്ക്കാൻ ആയിട്ട് നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാം മുപ്പത് മൊത്തത്തിൽ എടുക്കാൻ ആയിട്ട് ആണ് പ്ലാൻ ആ അപ്പം എൻ്റെ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ മുപ്പത് എടുക്കുന്നത് ആയിരിക്കും നല്ലത് ആ ആ കാരണം ഇപ്പോൾ അത് മേടിച്ചിട്ട് വേണമെങ്കിൽ പതിനഞ്ചിന് വേണമെങ്കിൽ അല്ലാതെ വിൽക്കുകയാണെങ്കിലും സാറിന് ലാഭം ആണ്

ആ അപ്പോൾ നമുക്ക് എന്നാൽ നേരിട്ട് കണ്ട് സംസാരിച്ചാലോ ആ ഓക്കെ എന്നാൽ എന്നെ വിളിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി